കാൻറിനല്ലേ അത് ഞാൻ ഈ കോളേജിന്റെ മലയാളം വിഭാഗത്തിന്റെ ഹെഡി ഓഫ് തി ഡിപാർട്ട്മെൻറായിരുന്നു അടുത്ത ആഴ്ച നമ്മൾ കോളേജിൽ വച്ച് മലയാളം വിഭാഗത്തിൻറയൊരു സെമിനാറ് നടക്കുന്നുണ്ട് അത് ഒത്തിരി ഏറെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പം അടുത്ത ആഴ്ചയാണ് അത് ഉച്ചകഴിഞ്ഞാണ് നടത്തുന്നത് അപ്പം അവർക്ക് ഏതാണ്ടൊരു അ പാർട്ടിസിപ്പൻസ് ഒരു അ നൂറ് പേരോളം പാർട്ടിസിപ്പൻസുണ്ട്

അവർക്ക് ഒരു റിഫ്രെഷ്മെൻറ് നമുക്ക് വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് നൽകണമെന്നുണ്ട് അപ്പം അ ഇരുപത്തി ആറ് മൂന്ന് മാർച്ച് ഇരുപത്തി ആറാം തിയ്യതി ആ അടുത്ത ഇരുപത്തി നാലാം തീയതി ഉച്ചകഴിഞ്ഞ് ആണ്

ആ നൂറ് പേര് പാർട്ടിസിപൻറ്റ്സ് പിന്നത് കൂടാതെ പ്രധാനപ്പെട്ട ഇത് ഇപ്പം അങ്ങനെ നയിക്കുന്നൊരു വ്യക്തിയുണ്ടല്ലോ പ്രധാനപ്പെട്ടൊരു വ്യക്തിയുണ്ട് സെമിനാറ് കണ്ടക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് അപ്പോൾ ഒരു ചെറുതായിട്ടൊരു റിഫ്രെഷ്മെൻറ് കൊടുക്കണം അപ്പം നമുക്ക് തണ്ണിമത്തൻ കൊടുത്താണ് ആ തണ്ണിമത്തൻ കൊടുത്താലോന്ന് ആലോചിക്കാൻ അ ജ്യൂസായിട്ട് കൊടുക്കാൻ അ നല്ല നല്ല തണ്ണിമത്തനാണോ ഉള്ളത് അ നല്ല മധുരമുള്ള അ ആ

ഒരു ആ ഈ ആഴ്ച ആ എത്ര രൂപ വെച്ചാണ് ആ അ സ്നാക്സെന്തെങ്കിലും കൊടുത്താലോ അങ്ങനെ നമ്മുടെ റേറ്റ് ആ ഇരുപത്തി അഞ്ച് രൂപ അങ്ങനെ നമുക്ക് ഒരു ജ്യൂസും ഒരു പപ്സും വച്ച് കൊടുക്കാം നൂറ് പേർക്ക്

അതുപോലെ ഈ വിശിഷ്ടാതിഥിക്ക് നമുക്ക് ഒരു പ്രത്യേകം സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കൊടുക്കണം നമുക്ക് അത് പ്രത്യേകം കൊടുക്കാം അവരുടെ കൂടെ ഒരു രണ്ട് മൂന്ന് പേർ കൂടെ കാണുമായിരിക്കും അപ്പം ഒരു അഞ്ച് പേർക്കുള്ള ആ അഞ്ച് പേർ അഞ്ച് പേർക്ക് മൊത്തം സ്പെഷ്യലാ ഗസ്റ്റ്നുൾപ്പെടെ അഞ്ച് പേർക്കും കൂടെ ഭക്ഷണം വേറെ വേണം ആ അവർക്ക് എന്താ കൊടുക്കാൻ പറ്റണത് ചപ്പാത്തി പൊറോട്ട അങ്ങനുള്ള എന്തെങ്കിലും എന്നാൽ നമുക്ക് പൊറോട്ട കൊടുത്താലോ ആ ഹാ അതും ചിക്കനും അപ്പം അഞ്ച് പേർക്ക് പ്രത്യേകമായിട്ട് പൊറോട്ടേം ചിക്കൻ കറീം ആ അതോടൊപ്പം തന്നെ നൂറ് പാർട്ടിസിപ്പെൻസിന്

തൽക്കാലം ഒക്കെയല്ലേ തണ്ണിമത്തൻ ജ്യൂസിൻറ കൂടെ നമുക്ക് വെജിറ്റബിള് മതിയായിരിക്കും വെജിറ്റബിള് കൂടി അപ്പം അത് ഇരുപത്തി ആറാം തീയതി ഉച്ച കഴിയുമ്പം നമ്മുടെ ഡിപാർട്ട്മെൻറിലേക്ക് അപ്പം എത്തിച്ച് തരികേലെ ആ മലയാളം ഡിപാർട്ട്മെൻറ് മലയാളം ഡിപാർട്ട്മെൻറിലേക്ക് ഉച്ച കഴിഞ്ഞൊരു നമുക്ക് ഒരു മണിക്ക് തുടങ്ങും ഒരു ആ നമുക്ക് മൂന്ന് മണിക്ക് കൊടുത്താൽ മതിയാകും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ മൂന്ന് മണിയാകുമ്പോൾ ആ രണ്ട് അരക്ക് ആ വ്വ് ആ രണ്ട് അരയാകുമ്പം എത്തിച്ച് തന്നാൽ മതി ആ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കേയാണല്ലോലേ കുഴപ്പമില്ലല്ലോ ആ എന്നാൽ ശരി താങ്ക് യു എന്നാൽ അപ്പം തന്നെ കൃത്യം സമയത്ത് എത്തിച്ചാൽ മതി ആ ശരി ഓക്കേ താങ്ക് യു